എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാനാണ് ഞാൻ മേടിച്ചത് അതായത് സീലിങ് ഫാനാണ് മേടിച്ചത് നമുക്ക് വീട്ടിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതു കൊണ്ട് അതാവത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴേൻ്റെ കാലത്ത് നമ്മൾ ഒരു ഭയങ്കര വെയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് അതായത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഫാൻ മേടിക്കാനുള്ളൊരു കാരണം ഉണ്ടായത് ഞങ്ങളുടെ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മച്ചാണ് അതുകൊണ്ട് അധികം ആ അങ്ങനെ ഒരു ഫാനിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഫാനൊന്നും വെക്കുന്ന കാര്യമൊന്നും ചിന്തിക്കാത്തത് ഫാനാണെങ്കിലും കൂളറാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെയ്ക്കുന്ന കാര്യം ചിന്തിക്കാത്തത് ചിന്തിക്കാത്തതും പ്ലാൻ ചെയ്യാത്തതും പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായപ്പോൾ ഞങ്ങളെന്തെയ്തു സീലിംഗ് ഫാൻ മേടിച്ചു എല്ലാവരുടെ വീട്ടിലും റൂമിലും മേടിച്ചു അപ്പോഴെന്ന് വെച്ചാൽ നല്ല കാറ്റാണ് നമുക്ക് അത്യാവശ്യം അതായത് കാറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് കിടക്കുന്നതിൻ്റെ നേരെ സെന്ററിലായിട്ടാണ് വെച്ചത് കാറ്റൊക്കെ നല്ലവണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല തണുപ്പ് നല്ലം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ള സീലിംഗ് ഫാനാണ് ഞാൻ മേടിച്ചത് അധികം വലിയ റേറ്റൊന്നും ഇല്ല നമുക്ക് പത്തായിരത്തി എഴുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സീലിംഗ് ഫാൻ നമുക്ക് വീട്ടിലെത്തും വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ഫാനും ആണ്